എന്റെ ബാങ്ക് അക്കൗണ്ട് മാറ്റിയതിനാലെ എന്റെ ഇന്ഷുറന്സ് പോളിസിയുടെ പെയ്മെന്റ് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പം പോളിസി കാലയളവിന്റെ പ്രീമിയം വിശദമായിട്ടു പോകാന് ഞാന് ആഗ്രഹിക്കുന്നു അതു കൊണ്ട് ഓണ്ലൈന് പോര്ട്ടലില് ലോഗ് ഇൻ ചെയ്ത് അത് എന്നെ ഒന്നു നാവിഗേറ്റ് ചെയ്യാമോ പുതിയ ബാങ്ക് അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ അനുസരിച്ച് എന്നെ അതിലേക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യാമോ വിശദമായ വിവരങ്ങൾ എനിക്ക് അപ്ഡേറ്റ് ചെയ്തു തരാമോ ആ ഇപ്പോൾ എന്റെ എല്ലാം അപ്ഡേറ്റ് ചെയ്തതായിട്ടാണ് കാണിക്കുന്നത് മാറ്റങ്ങൾ അവിചാരിതമായിട്ട് സേവ് ചെയ്തു ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരു അപ്ഡേറ്റ് ആയിരിക്കട്ടെ